കായികരംഗത്ത് ഒരു വ്യക്തിയ്ക്ക് തൻ്റെ മികവ് തെളിയിക്കണമെങ്കിൽ തീർച്ചയായും ഒരു പരിശീലകൻ്റെ ആവിശ്യം ഉള്ളതായി വരുന്നുണ്ട് തൻ്റെ സ്വന്തം കഴിവും ഒപ്പം പരിശീലകൻ്റെ ചില പൊട്ടും പൊടിയും ചേർത്ത അടവുകളും പ്രയോഗിച്ചിട്ടാണ് ഏതൊരു കായികതാരങ്ങളും തൻ്റെ കഴിവ് ഉയർത്തിക്കൊണ്ടു വരുന്നത് ഈയൊരു പ്രദേശങ്ങളിൽ പ്രേത്യേകിച്ച് വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ കായികതാരങ്ങൾക്ക് ഉയർന്നു വരാനോ അതിലുപരി പഠന മേഖലയിലുള്ളവർക്കും ഉയർന്നു വരാനോ ഒന്നും തന്നെ യാതൊരു രീതിയിലുമുള്ള ആനുകൂല്യങ്ങളും വികസനം ഉണ്ടാകാറില്ല അതുപോലെതന്നെ മറ്റു കായിക മേഖലകളിൽ സൗജന്യമായിട്ട് പരിശീലനം നൽക്കുന്നത് പോലെ എല്ലാ കായിക മേഖലകളിലും സൗജന്യ പരിശീലനം നൽകുകയാണ് എങ്കിൽ ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിക്കേണ്ട കുട്ടികൾക്ക് ഉയർന്നു വരാനുള്ള ഒരു നല്ല അവസരമായിട്ട് അത് കാണാവുന്നതാണ് പൈസയിലുപരി പണത്തിലുപരി കഴിവുകൾക്ക് പ്രാധ്യാന്യം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്